ഹലോ എനിക്ക് പാലക്കാടുനിന്ന് മംഗലാപുരം വരെ പോകാനായിരുന്നു നിങ്ങളുടെ കൈയിൽ ഏതൊക്കെ ബൈക്കുകളാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക കാറുകൾ ഏതൊക്കെയാണ് ഉണ്ടാവുക ലക്ഷ്വറി വെഹിക്കിൾസ് ഉണ്ടാകുമോ എനിക്ക് പോകേണ്ടത് ഈ മാസം പതിനഞ്ചാം തീയതി സൺഡേ ആണ് അപ്പോൾ സൺഡേ മോർണിങ്ങോ അല്ലങ്കിൽ ആഫ്റ്റർനൂൺ ആയിട്ടാണ് എനിക്ക് പോകേണ്ടത് അപ്പോൾ നിങ്ങളുടെ കൈയ്യിൽ ഏതൊക്കെ വണ്ടികളുണ്ടാവുക അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങടെ ക്യാബ് എങ്ങനെയാണ് അതിൻ്റെ നിങ്ങളുടെ ഏജൻസിയുടെ സർവ്വീസ് എങ്ങനെയാണ് ടൗണിൽ പാലക്കാട് ടൗണിൽ അതിൻ്റെ നിങ്ങടെ ഏജൻസിക്ക് ഔട്ട്ലെറ്റുണ്ടോ ഏതൊക്കെ തരം വെഹിക്കിൾസാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് അറിയാനായിരുന്നു